എൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കേണ്ടി വന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് തിരിഞ്ഞ് പഠിക്കണമെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരുപാട് ആളുകൾ വിവിധ തരത്തിലുള്ള സജ്ജെഷൻസ് പറഞ്ഞു എന്നാലും പലരുടെയും അഭിപ്രായം വ്യത്യസ്ത രീതിയിലായിരുന്നു എനിക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യണോ അതോ ഡിഗ്രി എടുക്കണോ എന്നുള്ളത് വലിയൊരു ചോദ്യ ചിഹ്നമായിരുന്നു എൻ്റെ മുന്നിൽ എന്നാൽ ഞാനത് വളരെ ആലോചിച്ച് ചെയ്യാനുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഞാൻ ഇന്നെടുക്കുന്ന തീരുമാനം എൻ്റെ കരിയറിനെ ബാധിക്കുന്നതായിരിക്കും ആ ഒരു സംശയം നില നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ചേച്ചീനെ കണ്ടായിരുന്നു ചേച്ചി ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് തിരിയണമെന്നോ അറിഞ്ഞു കൂടാത്ത ഒരു സാഹചര്യത്തിലാണ് ചേച്ചി ബി കോം കോപ്പറേഷൻ ചൂസ് ചെയ്തത് ചേച്ചി ചേച്ചിയൊരു ബാങ്ക് വൺ ഇയർ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നു നല്ല കഠിനമായി പരിശ്രമിച്ചു ഇപ്പോൾ ചേച്ചി ബാങ്ക് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് കേട്ടതും എനിക്ക് വളരെയധികം മോട്ടിവേഷൻ ആയി എൻ്റെ കരിയർ നല്ല രീതിക്ക് കൊണ്ടു വരണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നുതുടങ്ങി ഞാൻ അങ്ങനെ എൻ്റെ വീട്ടുകാരോട് ഇതിനെകുറിച്ച് സംസാരിച്ചു അവരെനിക്ക് ഫുൾ സപ്പോർട്ട് ആയിരുന്നു നല്ല രീതിക്ക് പഠിക്കണം നല്ല മാർക്ക് വാങ്ങിക്കണം നല്ല ജോലി സമ്പാദിക്കണം എന്ന് അവര് ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് പഠിക്കണം ജോലി സമ്പാദിക്കണം എന്നൊക്കെ നല്ല രീതിക്ക് തന്നെ ഒരു മോഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതേക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ നെറ്റിൽനിന്ന് കണ്ട് മനസ്സിലാക്കി എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും പിന്നെ എൻ്റെ ചേച്ചി ഒക്കെ എനിക്ക് നല്ല ഇൻസ്പിരേഷൻ ആയിരുന്നു അവർ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള അഡ്വൈസ് തന്നു എങ്ങനെയൊക്കെ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാം എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാം എന്നൊക്കെ അവർ പറഞ്ഞ് തന്നു ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ വീട്ടുകാരുടെ അഡ്വൈസ് എന്നെ വളരെ അധികം ഇൻഫ്ലുവെൻസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നല്ല മാർക്സോടെ എനിക്ക് നല്ല പെർസെൻറ്റേജും കിട്ടി എൻ്റെ ആഗ്രഹം ഒരു ബാങ്ക് എംപ്ലോയീ ആവണം എന്നതാണ് എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ഉപദേശം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എൻ്റെ ഇൻസ്പിരേഷനും അവരാണ് കൂടുതലും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അഡ്വൈസ് ആണ് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ളത് അവരുടെ ഓരോ വാക്കുകളും എന്നെ വളരെ അധികം മോട്ടിവേറ്റടും എനിക്ക് ഒരുപാട് ഇന്റെ ആത്മവിശ്വാസം കൂട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന സാഹചര്യം